ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് വിദ്യാഭാ സമ്പ്രദായങ്ങൾ ഇന്ന് ഈ പ്രദേശങ്ങളിലുണ്ട് പ്രധാനമായും സ്കൂളുകൾ കോളേജുകൾ അതോടൊപ്പംതന്നെ ഒരുപാട് അംഗണവാടികൾ അങ്ങനെ വിദ്യാർത്ഥികൾക്കും കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇടുക്കി ജില്ലയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സ്കൂളുകളിൽ തന്നെയാണെങ്കിലും കോളേജുകള് തന്നെയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പ്രധാനമായും ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണെങ്കിലും കോളേജുകൾ നിരവധി രണ്ട് കോളേജുകളാണ് ഉള്ളത് പ്രധാനമായി മരിയൻ കോളേജ് രണ്ടും എം ബി എമാർ ബെസേലിയസ് രണ്ട് കോളേജുകളാണ് ഉള്ളത് അതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികള് കോളേജുകളിൽ കടന്ന് വരികയും വിദ്യാഭ്യാസം നന്നായിട്ട് വളർത്തുവാൻ സാധിക്കുന്നുണ്ട് അതിലുപരിയും സ്കൂളുകൾ തന്നെയാണെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തന്നെ സാധിക്കുന്നുണ്ട് അതിനാത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെയധികം ഭംഗിയോടു കൂടി വിദ്യാർത്ഥികളിൽ ഉന്നമനത്തിനായിട്ട് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സാക്ഷരതയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത് പ്രധാന വെല്ലുവിളികൾ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രധാനമായും പഠനം രീതികൾ തന്നെയാണ് അതിൽ പുറത്തുനിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവർക്ക് വളരെയധികം ഭാഷ വളരെ ഒരു ബുദ്ധിമുട്ടാണ് രണ്ടാമത് വിദ്യാഭ്യാസ സമ്പ്രദായം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകൾ ഒഴിവാക്കി രാവിലെ മുതൽ ഉച്ചവരെയുള്ള ക്ലാസ്സുകളാക്കി കുറച്ചു ഒരു പീരീഡൊക്കെ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ അതൊക്കെ വളരെയധികം കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതും പഠിക്കാൻ വളരെ സുഖമകരമായും എളുപ്പകരമായതുമാണ് അത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളരെയധികം നന്നായിട്ട് ബാധിക്കുന്നു നന്നായിട്ട് വളരെയധികം എളുപ്പമാണ് വെല്ലുവിളികളെ പറ്റി പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളിൽ അവരുടെ വിദ്യാഭ്യാസരംഗത്ത് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മിച്ചം ഒരു മികച്ച മെച്ചമായ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല കാരണം പഠിക്കുന്ന വിദ്യ വിദ്യാഭ്യാസത്തിന് ഒത്തക്കവണ്ണമുള്ള ജോലി ഇവിടെ ലഭിക്കുന്നില്ല അതാണ് പ്രധാനമായുള്ള ഒരു വെല്ലുവിളി മിക്ക ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇവിടുന്ന് മനോഹരമായി നന്നായിട്ട് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും അവർ ആർക്കും തക്കതായ ഒരു ജോലി പഠിച്ചത് സംബന്ധിച്ച് ഒരു ജോലി ലഭിക്കുന്നില്ല അത് വലിയൊരു പോരായ്മയും വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മിക്ക കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് അവർ മിക്കവരും നോക്കുന്നത് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അതിൽനിന്ന് മാറി നാട്ടിൽ തന്നെ അവർക്ക് ജോലി കൊടുക്കാനുള്ള സമ്പ്രദായം റെഡിയാവുകയാണെങ്കിൽ അത് ഏറ്റവും വളരെ അവർക്ക് വിലപിടിപ്പുള്ളതും അവർക്ക് ഏറ്റവും അധികം ഭാവിയിലേക്ക് ഉന്നമനത്തിന് വലിയൊരു ഉന്നമനത്തിന് മാറ്റത്തിന് കാരണമായി തീരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നല്ല സമ്പ്രദായം വിദ്യഭ്യാസ സമ്പ്രദായം ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിനൊത്ത വണ്ണമുള്ള ഒരു ജോലികയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അതെത്രയും വേഗം തന്നെ അതിനുള്ളൊരു തീരുമാനം അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് ഇവിടെ നിൽക്കുന്നത്